തീര്ച്ചയായും നൃത്തം ഒരു ഒരു ഹോബി ആയിട്ട് അല്ലെങ്കില് ഒരു പാഷന് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകള് നമ്മുടെ സമൂഹത്തിലുണ്ട് അത് അതൊരു തര്ക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഉള്ളവര്ക്കൊരു പിന്തുണയും ഒരു പരിധി വരെ നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ നൃത്തം ത്തെ കുറിച്ച് പഠിക്കാനുമായി അതിന്റെ ഒരു അതൊരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടു പോകാനും ഒന്നും എല്ലാവരും ഒന്നും തയ്യാറാകണമെന്നില്ല ഒരു കാര്യം അതിന്റെ ജോലി വശങ്ങള് ആള്ക്കാര്ക്ക് അറിയില്ല മറ്റ് രണ്ട് അത് ആള്ക്കാര് അംഗീകരിക്കുന്നില്ല അംഗീകാരം വളരെ കുറവാണ് അപ്പം ഇതാണ് നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പിന്നെ പിന്തുണനെ പിന്തുണയുടെ കാര്യം പറയുവാണെങ്കിൽ അതുണ്ടോ ചോദിച്ചാൽ വളരെ പക് വളരെ കുറവാണ് എല്ലാ എല്ലാ മേഖലകളിലുവൊന്നും എല്ലാവരും ഒന്നും പിന്തുണയ്ക്കുന്ന ഒരു കാര്യമല്ല നൃത്തം അല്ലെങ്കില് കലകള് കലകളൊരു ഒരു ഒരു മെയിൻ ആയിട്ട് അല്ലെങ്കില് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ജീവിതത്തില് അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആള്ക്കാർ വളരെ കുറവായിരിക്കും കാരണം ഉണ്ടെങ്കില് തന്നെ അത് വളരെ വിരലിൽ എണ്ണാവുന്ന ആള്ക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ നൃത്തത്തിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ഞാന് നേരെത്തേ പറഞ്ഞത് പോലെ തന്നെ നൃത്തം ചെയ്യുന്നവര്ക്ക് എതിരെയുള്ള അവഗണനകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുവാണ് നൃത്തം ചെയ്യുന്നവരേയും വളരെ മോശപ്പെട്ടവർ ആണെന്നോ അവരുടെ ജാതി വളരെ മോശമാണെന്നും ഒക്കെ ഉള്ള ഒരു ഒരു ഒരു ഒരു മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു പ്രവര്ത്തനങ്ങള് ഒരുപാട് സംഭവിക്കുന്നുണ്ട് നൃത്തം ചെയ്യുന്നവര്ക്ക് അവര്ക്ക് അര്ഹിക്കുന്നതായൊരു പിന്തുണ നമ്മുടെ സമൂഹത്തില് ലഭിക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണിത് നൃത്തത്തിന് കുറച്ചു കൂടെ പ്രാധാന്യം നമ്മുടെ നാടും സമൂഹമൊക്കെ കൊടുക്കേണ്ടിയിരിക്കുന്നു എനിക്ക് എന്റെ ജീവിതത്തിലാണെങ്കിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് നൃത്തം വേണ്ട നൃത്തം ചെയ്യേണ്ട അങ്ങനെയൊരു രീതിയിൽ എന്റെ കുടുംബത്തില് നിന്ന് എനിക്ക് എനിക്ക് ആള്ക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഹോബി ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാന് അവർ അങ്ങനെ പറഞ്ഞില്ലാതെ ഒരുപക്ഷേ ഞാനത് ചെയ്തേനെ നൃത്തത്തിലിപ്പോഴും വളരെ പ്രാധാന്യത്തിൽ വളരെ മ് മുന്നിട്ട് തന്നെ നിന്നേനെ പക്ഷേ ഇപ്പം ഞാൻ അത്രയും മുന്നിട്ട് നിൽക്കുന്നില്ല ഒരു കാരണം സമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്